മനുഷ്യ ശരീരത്തിൽ തന്നെ എഴുപത് ശതമാനത്തോളം വെള്ളമാണെന്നാണ് പറയുന്നത് അത് നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ ഒന്നു ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കില്ല രാവിലെ എണീറ്റ് കുളിക്കുന്നതും പല്ലുതേക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും എല്ലാത്തിനും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു ചെടികൾ നനയ്ക്കുന്നതിന് അലക്കുന്നതിന് കുളിക്കുന്നതിന് പാത്രം വൃത്തിയാക്കുന്നതിന് നിലം തുടയ്ക്കുന്നതിനും ഒക്കെ വെള്ളം ഉപയോഗിക്കുന്നു അതിൽ കൂടുതൽ നമ്മൾ കുടിക്കുന്നതിന് ഉപയോഗിക്കുന്നു പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ജലം തന്നെയാണ് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു വസ്തുവാണ് വെള്ളമെന്നു പറയുന്നത്